ഹലോ ഹലോ

അതെയോ ഞാൻ ആ രാവിലെ ഉച്ച വരെയുണ്ടാവും ഞാൻ എല്ലാ ദിവസവും ഉച്ച വരെ ഉണ്ടാവും അതായത് എൽ കെ ജി പിന്നെ രണ്ടാം ക്ലാസ് അല്ലേ മലയാളം മീഡിയമാണോ ചേർക്കേണ്ടത് ഇംഗ്ലീഷ് മീഡിയമാണൊ ആ ഇല്ല തന്നെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് നിങ്ങൾ തിങ്കളാഴ്ച്ച ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഓഫീസിലേക്ക് വരുമോ നമ്മൾ എല്ലാം പറഞ്ഞ് തരാം അപ്പോൾ തിങ്കളാഴ്ച്ച ഒരു പതിനൊന്ന് മണിക്ക് വന്നെങ്കിൽ ചേർക്കണ്ട ഇതും അതിൻ്റെ കാര്യം കുട്ടികളേയും കൂട്ടി കൊണ്ട് വരുന്നെങ്കിൽ വരൂ ആധാർ കാർഡിൻ്റെ കോപ്പിയും പിന്നെ എമൗണ്ട് എല്ലാം ഞാനപ്പം പറയാം അതിൻ്റെ റൂൾസ് എല്ലാം അന്ന് പറയാം നിങ്ങൾ കുട്ടികളെ ചേർക്കുക ആ ആ ടി സി എടുത്തിനല്ലോ ടി സി എടുത്ത് കൊണ്ട് വരണം രണ്ടാം ക്ലാസ്സിൻ്റെ കുട്ടിയുടെ ടി സി എടുത്തു കൊണ്ട് വരണം ഇവിടെ ചേർക്കണ്ടേ മറ്റേ എൽ ക്കേ ജീൻ്റെ ധൈര്യമായിട്ട് ചേർക്കാം അപ്പോൾ അതെല്ലാമായിട്ട് വന്നാൽ അന്ന് നമ്മൾ സ്കൂൾ വന്നിട്ട് അത് വിശദമായിട്ട് പറയാം ഫീസിൻ്റെ കാര്യം എല്ലാം എത്ര റേറ്റ വരണം പിന്നെ ഇത് സ്കൂൾ ബസ്സ് വേണോ കുട്ടികൾ അല്ലെ നിങ്ങൾ കൊണ്ട് പോകുന്നോ ഉണ്ടോ അ ആ ആ ആ ആ ആ സ്കൂൾ ബസ് ഉണ്ട് ആ ആ ആ ആ അതെ തിങ്കളാഴ്ച്ച ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ ഓഫീസിൽ വരൂ കേട്ടോ അപ്പോൾ എല്ലാം സ്കൂൾ ബസ്സിൻ്റെ കാര്യവും ഫീസും എല്ലാം അന്ന് നമ്മൾക്ക് പറയാം ആ ആ കുട്ടികളേയും കൂട്ടിയിട്ട് വരൂ ഓക്കെ ഓക്കെ അപ്പം ഉം ശരി ഉം